ഹലോ ആ പറഞ്ഞോളു സാറെ ഇത് പോലീസ് സ്റ്റേഷനീന്നായിരുന്നു അതെ പോലീസ് സ്റ്റേഷന് ഹരിപ്പാട്

മൊബൈല് എവിടെ വെച്ചാണ് കാണാതെ പോയത് എങ്ങനാണ് വീട്ടില് വെച്ചോ വീട്ടീന്ന് മോഷണം പോയോ അതോ അപ്രോക്സിമേറ്റ് ഏത് ഏത് ലൊക്കേഷന്ൽ വെച്ചാണ് അത് മിസ്സ് ആയത് അറിയാമോ ഇന് ബിറ്റ്വീന് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഹരിപ്പാട്ടൂന്ന് ആ ഇപ്പം കേൾക്കാം ആ പറഞ്ഞോളു ആ പോക്കെറ്റില് നിന്ന് അതോ ബേഗില് നിന്ന് മിസ്സ് ആയോ ആ ഓക്കെ അപ്പോൾ ഒരു അത് ചെയ്യണ്ടേന്ന് വെച്ചാൽ ഏത് സര്വീസ് പ്രൊവൈഡറാന്ന് വെച്ചാൽ അത് മൊബൈല് നമ്പറും ഇതും ആയിട്ട് മെ പോലീസ് സ്റ്റേഷനീ വന്ന് ഒരു ആപ്ലിക്കേഷന് തരാം തരേണ്ടതായിട്ടുണ്ട് അതെ ഒരു ആപ്ലിക്കേഷന് അത് എന്റെ മൊബൈല് നമ്പര് ഇന്നത് മൊബൈലിന്റെ മോഡലും വേച്ചിട്ട് ഇന്ന ദിവസം ഇന്നെടുത്ത് ഇന്ന വഴിയില് വേച്ച് ഇത്ര മണിക്ക് കാണാതെ പോയിട്ടുണ്ടെന്നുള്ള അതെ അത് ആദ്യമായിട്ടങ്ങനെ എഫ് ഐ ആര് രജിസ്റ്റര് ചെയ്താലേ നാളെ ട്രേസ് ഔട്ട് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ഈ മൊ സിം ക്യാൻസൽ ആകണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനീ എഫ് ഐ ആര് ര രജിസ്റ്റര് ചെയ്ത ഒരു റെക്കോര്ഡ് വേണം എന്നാലെ അത് നമുക്കത് സിം ബ്ലോക്ക് ആക്കാന് പറ്റൂ പിന്നെ ഫോണില് വിളിച്ച് എന്ക്വയറി ആ ഫോണില് ഒന്ന് വിളിച്ച് നോക്കിയായിരുന്നോ എന്ത് സ്റ്റാറ്റസാ കാണിക്കുന്നത് സ്വിച്ച് ഓഫ് ആണ് ആ ഓക്കെ ഓക്കെ പിന്നെ ആ ബെസ്സു ആയിട്ട് എന്തെങ്കിലും കോണ്ടേക്റ്റ്സ്കള് ഉണ്ടായിരുന്നോ ബെസ്സ്കാരോട് വല്ലോം അന്വേഷിക്കാന് പറ്റുവെങ്കിൽ ഓക്കെ ഓക്കെ അപ്പം പോലിസ് സ്റ്റേഷനി വരെ വന്ന് ഒരു അപേക്ഷ എഴുതി തരുക ഒരു പരാതി എഴുതി തരുക ഓക്കെ ഓക്കെ